ഹലോ ആ ആ ഇത് ലക്ഷ്മി ട്രാവൽ ഏജൻസീസ അല്ലേ ആ ഞാൻ ശ്യാമ ആണ് കേട്ടോ ഞാൻ വിളിച്ചത് ആ ചെറിയ ഒരു ഒരു ടൂറ് പോലെ ഒരു മിനി ടൂറ് പോലെ ഒന്ന് ഞങ്ങളെ കൊച്ചിന് ഒന്ന് ചോറൂൺ തൃശ്ശൂർ വച്ച് നടക്കുന്നുണ്ട് ഗുരുവായൂർ വച്ചിട്ടാണ് അപ്പം അവിടെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇപ്പം എൻ്റെലിപ്പോ ട്രാവലിംഗ് ഏതേലും ഉണ്ടോ ബിസി ആണോ അതോ കിട്ടുമോ പെട്ടെന്ന്

അതെ റേറ്റ് ഞാൻ പറയാം അതിന് മുമ്പ് നമ്മൾക്ക് ചെറിയൊരു രാവിലെ ഒരു ഒൻപത് മണിക്ക് പോയിട്ട് ഒരു അഞ്ച് മണിക്ക് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയ ഒരു ഫാമിലി ആ ഓ അത് ആ അല്ല റൂമ് എടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾക്ക് അങ്ങനെ നിൽക്കാം അതിന് കുഴപ്പമൊന്നും ഇല്ല പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആ പിന്നെ ഒരു ഒരു ഫാമിലി ഉള്ളൂ ഒരു പത്ത് പത്ത് പേര് കൂടി പോയാൽ പത്ത് അതിൽ കൂടില്ല അപ്പം അത്ര പേർക്കുള്ള ഒരു ചിലി അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു ക്യാബാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു മിനി ബസ്സ്

ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാം ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാം അത് എല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം എൻ്റെ അടുത്ത് എത്രയാണെന്ന് പറയാൻ അല്ല അല്ല അതൊക്കെ നിങ്ങളുടെ തന്നെ ആണ് ആ

ഓക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്

ആ താൻ ആ ആ ഓക്കെ ഓക്കെ ആ അത് ഇപ്പം എങ്ങനെ ആയാലും കുഴപ്പമില്ല ആ ഹലോ പറഞ്ഞോളൂ ആ പതിനൊന്ന് അല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോവുന്നത് അപ്പം അതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ല അത് ഞാൻ ഇയാളുടെ അടുത്ത് ഡീറ്റെയിലായിട്ട് ചോദിച്ചത് മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ആയത് കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇളവോ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരാനൊക്കെ പറ്റുമോ ഫസ്റ്റ് ടൈമ് അല്ലേ കുട്ടികളൊക്കെ ഉള്ളതു കൊണ്ട് ആ ഓക്കെ മാഡം അപ്പം അതിന് അനുസരിച്ചൊക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് വിളിക്കണം എന്താണെന്ന് ആ ഇത് തന്നെയാണ് ഇപ്പോൾ ഓക്കെ ആ അതെ അതെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന എന്നെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ ഇതെല്ലാം ഇപ്പം ഫാമിലിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം ഈ മാസം ഇരുപതാം തീയതി ആണ് പോവാൻ നിശ്ചയിച്ച് ഇരിക്കുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ അവരോട് ഒന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ ഓക്കെ ശരി താങ്ക് യു